കളിമണ്ണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്കിപ്പം വയലില് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വയലിൻ്റെ സൈഡിൽ കുടെയും അതിലൂടെക്കെ കളിമണ്ണ് നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നുണ്ട് കളിമണ്ണുപയോഗിച്ച് നമുക്ക് ഇഷ്ട്ടിക ഉണ്ടാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കളിമണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മള് എന്താ ഇങ്ങനെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ട്ടത്തിനുള്ള ഷേപ്പിനനുസരിച്ച് നമ്മുക്കിഷ്ട്ടമുള്ള സാധനങ്ങള് നമുക്കതിൽ വച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതൊക്കെ കിട്ടുന്നതെവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയലിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്

പിന്നെ ഇതിൻ്റെ ആവശ്യംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മള് ഒരുപാട് കാര്യത്തിനായിട്ട് കളി മണ്ണ് യൂസ് ചെയ്യുന്നൊണ്ട് നമ്മളുപയോഗിക്കുന്ന പല സാധനങ്ങളും ചിലപ്പോൾ കളിമണ്ണ് വച്ചിട്ടാണ് ചിലതൊക്കെ ഉണ്ടാക്കുന്നതും ഇത് കിട്ടുന്നത് വയലിൽ നിന്നാണ് വയൽ പ്രദേശങ്ങളിൽ നിന്ന് കൂടുതലായിട്ടും ലഭിക്കുക പിന്നെ ഞണ്ട് കൂടുണ്ടാക്കുന്നതും വയലിൽ ഞണ്ട് താമസിക്കുന്ന വീട് അതൊക്കെ ഈ കുഴീൻ്റെ ഉള്ളിന്നക്കെ ആയിരിക്കും ഈ കുഴീൻ്റെ ഉള്ളില് ഞണ്ടൊക്കെ ഉണ്ടാകും ഒരു കുഴി പോലെയാണത് ഈ ത് കളിമണ്ണിന് ചുറ്റും ആ കളിമണ്ണെടുത്ത് നമ്മളൊരുപാട് കാര്യങ്ങള് ചെയ്യും ആ കളിമണ്ണ് യൂസ് ചെയ്ത് നമുക്കിഷ്ട്ടമുള്ള് ഷേപ്പിൽ നമുക്കത് ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വച്ച് ഉണക്കിക്കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് പൊട്ടിക്കാനൊന്നും കഴിയില്ല അതായത് അത് അതുപോലെതന്നെയുണ്ടാകും ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കിത് വച്ച് ഇഷ്ടികകളൊക്കേ ഉണ്ടാക്കാം വീട് നിർമ്മിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം